ഹലോ ഞാൻ അമേരിക്കയിൽനിന്നാണ് കേട്ടോ വിളിക്കുന്നത് അപ്പോൾ എനിക്കവിടെ നല്ല ഗവണ്മെൻറ്റ് സ്കൂള് ഏതൊക്കെയാണ് എന്ന് അറിയണം എന്നുണ്ടായിരുന്നു അപ്പോൾ കുട്ടികളെ അവിടെ സ്കൂളിലേക്ക് ചേർത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഒരു കൽപ്പറ്റ ബത്തേരി ആ ഒരു ഏരിയേലിക്കാണ് വരാനുദ്ദേശിക്കുന്നത് അവിടെ നല്ല ഒരു ഹൈ സ്കൂള് ഒരു

ആ ഗവണ്മെൻറ്റിലെ നല്ല സ്കൂള് ആ അവിടെ പിന്നെ മൂന്നാം ക്ളാസ്സിലേക്കും അഞ്ചാം ക്ലാസ്സിലേക്കും ചേരാനിരിക്കുന്ന മക്കളാണ് കേട്ടോ ഇവിടുന്ന് ടി സി വാങ്ങിയിട്ട് ഞങ്ങൾക്കവിടെ പുതിയ അഡ്മിഷന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ക്ലാസ്സിപ്പം ഏകദേശം തീരാനായില്ലേ ഇനിയിപ്പോൾ അഡ്മിഷൻ കിട്ടുന്നതിന് ബുദ്ധിമുട്ടെന്തെങ്കിലും ഉണ്ടാവുമോ

ആ കുട്ടികളെ വിദ്യാഭ്യാസം ഒക്കെ എങ്ങനെയാ

ഹോംവർക്ക് ഒക്കെ കുറേ കൊടുത്ത് വിടോ കുട്ടി ആ അപ്പോൾ സ്കൂൾ ബസ്സ് സൗകര്യം ഒക്കെയോ ആ ആ ഗവണ്മെൻറ്റിൻ്റെ ആനുകൂല്യം എന്തെകിലും നമുക്ക്

ആ ആ ആ ഓക്കേ

ആ എന്നാൽ ഞാൻ ഒന്ന് അന്വേഷിച്ചിട്ട് പറയാം കേട്ടോ ഓക്കേ ആ ആ ഓക്കേ വിളിക്കാം ശരി